നമ്മളെ സംസ്ഥാനത്ത് മാധ്യമങ്ങൾ വളരെയേറെ ഉണ്ട് നമ്മുടേ ടിവി ചാനലുകളിലായാലും ഫോണിലൂടെ ആയാലും വളരെയധികം പത്രവാർത്തകൾ ആയാലും ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ട് നമ്മുടെ പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥയിൽ പ്രാദേശിക സമൂഹത്തേയും ഈ മാധ്യമങ്ങൾ വളരെ അധികം പിന്തുണ നൽകുകയും അവയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ മാധ്യമങ്ങൾ വഴിയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വളരെയേറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നത് പ്രകൃതി ദുരന്തങ്ങളായാലും അവയ്ക്ക് വേണ്ട സഹായങ്ങൾ ആയാലും മാധ്യമങ്ങളിലൂടെ അറിയുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മളിലേക്ക് അത് പെട്ടെന്ന് എത്തുന്നത് ഈ അടുത്ത സമയത്ത് വയനാട് നടന്ന ഉരുൾ പൊട്ടലിലൂടെയും മാധ്യമങ്ങൾ വളരെ അധികം സഹായം മാധ്യമങ്ങൾ ഉണ്ടായതു കൊണ്ടാണ് വാർത്ത പുറംലോകം അറിയാനും അവരെ സഹായിക്കാനായി വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ പോവാനായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ നല്കാനായാലും സാധിച്ചത് മാധ്യമങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഓരോ വളരെയേറെ ആൾക്കാരുടെ ജീവിതം ജീവനും രക്ഷപ്പെടുത്താനും സാധിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ വളരെയേറെ സാമ്പത്തിക വ്യവസ്ഥയെയും പ്രാദേശിക സമൂഹത്തേയും വളരെ അധികം പിന്തുണക്കുന്നുണ്ട് മാധ്യമങ്ങളുടെ വളർച്ചക്ക് കാരണമായ പുതിയ പുതിയ തൊഴിലവസരങ്ങളിൽ കൂടുതൽ കൂടുതൽ ആളുകൾ മാധ്യമരംഗത്ത് വരികയും വാർത്താ അവതാരകരായിട്ടും എഡിറ്റേറ്റ് ആയിട്ടായാലും ഒരുപാട് തൊഴിലവസരങ്ങൾ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് മാധ്യമങ്ങൾ വളരെ വഴി വളരെയധികം തൊഴിലവസരങ്ങൾ നമ്മുടെ സമൂഹത്തിന് യുവാക്കൾക്ക് നൽകുന്നുണ്ട് മാധ്യമപ്രവർത്തകര് ഉണ്ടതുകൊണ്ട് ആണ് നമുക്ക് നമ്മുടെ ദേശത്ത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആൾക്കാരെ മനസ്സിലാക്കി അവർക്ക് അർഹിക്കുന്ന അവർക്ക് വേണ്ടത്ര സഹായം സഹായ സഹകരങ്ങൾ മറ്റുള്ളവർ വഴി എത്തിക്കാൻ സഹായിക്കുന്നത് മാധ്യമപ്രവർത്തകർ ഉണ്ടായത് വളരെയേറെ അഴിമതികൾ ആയാലും വളരെയധികം കഷ്ടപ്പെടുന്നവരെ ആയാലും വളരെയധികം എല്ലാ കാര്യങ്ങളായാലും വാർത്തകളിലൂടെ പുറത്തു കൊണ്ടുവരുന്നത് ഈ മാധ്യമങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ ഗുണവും ദോഷവും ഒരുപോലെ ചെയ്യുന്നുണ്ട് തെറ്റായ രീതിയിലുള്ളവ വാർത്തകളും മറ്റും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ട് ഗുണദോഷങ്ങളും ഏത് കാര്യത്തിനായാലും ഉള്ളതുപോലെ മാധ്യമങ്ങളുടെ വശത്ത് നിന്നും ഗുണദോഷങ്ങൾ വളരെ അധികം ഉണ്ട് നമ്മുടെ സാമ്പത്തിക വളർച്ച മാധ്യമങ്ങളിലൂടെ ഉണ്ടായ ഉണ്ടായ ഓരോരോ ജോലി സാധ്യതകളെ കുറിച്ചായാലും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടാണ് യുവാക്കൾക്ക് തൊഴിലവസരങ്ങളും ഒക്കെ വളരെയേറെ ലഭിക്കുന്നത് അതിന് മാധ്യമങ്ങളുടെ അധിപ്രസരം നമുക്ക് വളരെയധികം സാമ്പത്തികാവസ്ഥയ്ക്ക് വളരെയധികം സഹായകരമാവുന്നുണ്ട് മാധ്യമങ്ങൾ എവിടെ നിന്ന് എവിടെയും അവർക്ക് യഥേഷ്ടം കടന്ന് കയറാനുള്ള അവസരങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഏത് കാര്യങ്ങളായാലും അഴിമതികളായാലും എല്ലാം പുറത്തു കൊണ്ടു വരുന്നു വരാനായാലും അതുവഴി പൊതുജനങ്ങൾക്ക് അവയെ കുറിച്ചുള്ള ഒരു അറിവും ബോധവും കിട്ടുകയും ചെയ്യുന്നുണ്ട് മാധ്യമങ്ങൾ ഒക്കെ മാധ്യമങ്ങളുടെ വളർച്ച കാരണം പുതിയ പുതിയ തൊഴിലവസരങ്ങളുണ്ട് ഒരോ വളരെയധികം മാധ്യമങ്ങൾ വളരെ വളരെ മാധ്യമങ്ങളായത് കൊണ്ട് നമുക്ക് ഫോണിലൂടെ ആയാലും ടിവി ചാനലുകളിലായാലും പുതിയ പുതിയ മാധ്യമം ഉണ്ട് അപ്പഴ് അതുവഴി തൊഴിലവസരങ്ങളും കൂടുന്നുണ്ട് സാമ്പത്തിക വ്യവസ്ഥയിലൂടെ സാമ്പത്തികമായിട്ട് അതുവഴി അവർക്ക് വളരെയധികം നമ്മൾക്ക് കേരളത്തിൽ വളരെയധികം മുന്നോട്ട് വളർച്ചയുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് സമൂഹത്തെ പിന്തുണയ്ക്കുകയും മറ്റുള്ള മറ്റുള്ള ആ ആൾക്കാർ തമ്മിൽ തമ്മിലുള്ള സ്പർദ്ദകളായാലും എല്ലാം ഒഴിവാക്കാനായാലും ഈ മാധ്യമങ്ങൾ വഴി സഹായകരമാകുന്നുണ്ട്